തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ക്യൂ നിൽക്കല് അതൊരു പ്രശ്നം തന്നെയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്നിട്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമുണ്ടാകില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ വന്നിട്ടിങ്ങനെ നമുക്ക് അതായത് റെഡിയാക്കി പിന്നെ പശുത്തൊഴുത്ത് കെട്ടിത്തരാം വീട് റെഡിയാക്കിത്തരാം അങ്ങനെ എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തിട്ടായിരിക്കും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ഇവർ വോട്ട് ചോദിക്കുക വോട്ട് ചോദിച്ചതിന് ശേഷം പിന്നെ നമുക്കിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുപ്പിന് പോയിട്ട് ക്യൂ നിന്ന് ബുദ്ധിമുട്ടി അവർക്ക് വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യവുമില്ല നമുക്ക് ഒരു ഉപകാരവുമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചെങ്കിൽ അവർ എന്തു ചെയ്യും പിന്നെ നമ്മളെ കണ്ടാൽ മൈൻ്റാക്കുക പോലുമില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അതാണ് മെയിനായിട്ട് പ്രശ്നം പിന്നെ ക്യൂ നിൽക്കുന്നതിൽ നമുക്കെന്തെങ്കിലും ഉപകാരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലാണ്ട് നമുക്കൊരു കാര്യമില്ലയെന്നറിഞ്ഞിട്ടും നമ്മൾ ക്യൂ നിന്നിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളുടെ നല്ല മനസ്സ് കൊണ്ട് മാത്രമാണ് അപ്പം ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നേര തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ നേരിടുന്ന മെയിൻ പ്രശ്നങ്ങൾ